ആരോഗ്യം ഉള്ള മൃഗങ്ങളെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തെ അതിന് ആഹാരം അതിൻ്റെ തീറ്റി എടുക്കാൻ തീറ്റിയുടെ ക്രമീകരണം തീറ്റി എടുക്കുന്നത് കാണുമ്പോഴറിയാം അതിന് അതിൻ്റെ അല്ലെങ്കിൽ പശു ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വളർത്തുമൃഗങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ വിസർജനം ഇതൊക്കെ നല്ല ആരോഗ്യം ഉള്ളതാണെങ്കിൽ അതിനെ നല്ല മുറുകി തന്നെ പോവും അതുപോലെ തന്നെ ആഹാരം എടുക്കും അങ്ങനെ ആഹാരം എടുക്കുമ്പോൾ അല്ലെങ്കിൽ തീറ്റയ്ക്കകത്ത് എന്തെങ്കിലും മടി കാണുമ്പോഴേ തീറ്റയിൽ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നതിൽ അതിനൊക്കെ എന്തെങ്കിലും മടി കാണിക്കുക അല്ലെങ്കിൽ അതൊരു കുറവ് വരുകയാണെങ്കിൽ അതിന് ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല മൃഗങ്ങളെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ ഒക്കെ ഇപ്പം സാധാരണ പശുക്കളൊക്കെ ആണല്ലോ നമ്മുടെ വീട്ടുകളിൽ എല്ലാവരും വളർത്താറുള്ളത് അതിന് നമ്മൾ എങ്ങനെ പെട്ടെന്ന് അതിനെ നല്ല ഇനത്തെ തിരിച്ചറിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ എച്ച് എഫ് പോലുള്ള അല്ലെങ്കിൽ ഉള്ള നമ്മൾ വില കൂടിയ സംകര ഇനം കന്നുകാലികളുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ ജേഴ്സി കന്നാണ് നമ്മുടെ നാടിന് പറ്റിയത് അതിന് മറ്റ് എല്ലാം അതിന് നമ്മുടെ സാധാരണ രോഗങ്ങളൊന്നും വരാറില്ല പാൽ ഉൽപ്പാദനം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അകിട് വീക്കം ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ നല്ല ഇനമെന്ന് പറയുമ്പം നമുക്ക് ഉൽപ്പാദനം ഇന്ന് കിട്ടുന്ന മൃഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇവിടെ നമ്മൾ ഇപ്പോൾ എച്ച് എഫ് എന്ന് പറയുന്ന ഒരു ഇനം വർ പശുക്കളൊക്കെ അതുപോലെ തന്നെ ആടൊക്കെ ആണെങ്കിൽ ആടുകളും ഇതുപോലെ തന്നെയാണ് ആരോഗ്യം ഉള്ള ആടുകളൊക്കെ നല്ലതുപോലെ അവ തീറ്റ എടുക്കുന്നു അതിന് വിസർജ്ജിക്കുന്ന വസ്തുക്കളൊക്കെ നല്ലെ ഗുളിക പോലെ ഉള്ള ആടിൻറേതാണെങ്കിലും അപ്പോൾ അങ്ങനെ വിസർജ്ജന വസ്തുക്കളൊക്കെ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടെങ്കിലത് തീറ്റിയും കുടിയും എടുക്കാനല്ലേ ആരോഗ്യപര ആരോഗ്യമുള്ള കന്നുകാലി ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഗുണമുള്ളതായി ഗുണമുള്ള നമുക്ക് അല്ലെങ്കിൽ അതിന് ഫലം എന്തെങ്കിലും ഉന്ന അല്ലെങ്കിൽ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇങ്ങനെ ഉള്ള ഒരു ഇങ്ങനെയുള്ള ഒരു മേഖലകളെ ധാരാളം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റി പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ വെട്ടായി വേട്ട മൃഗങ്ങളായി വേട്ടുന്നതിനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ യഥാസമയം അതിനെ സംരക്ഷിക്കുമ്പോൾ പരിപാലിക്കുന്നതിന് യഥാ സമയമൊക്കെ അതിന് കൃത്യ സമയത്ത് ആഹാരം കൊടുക്കുക അതുപോലെ തന്നെ അതിനെ കുളിപ്പിക്കേണ്ട വിധത്തിൽ കുളിപ്പിക്കാം വെള്ളം കൊടുക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കുക അത് കൃത്യസമയത്തൊക്കെ ചെയ്യാമെങ്കിൽ അതൊക്കെ കൂടുതലായും നമുക്കതിനെ ഉല്പാദനം എടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പശു ഒക്കെ ആണെങ്കിൽ നമ്മൾ യഥാ സമയം ഒരു കറക്കുന്നു അല്ലെങ്കിൽ അതിനെ കറക്കുക കറവയുടെ സമയമൊക്കെ എന്ന് പറയുമ്പോൾ അതിന് കൃത്യനിഷ്ഠ വയ്ക്കാമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അന്ന് രാവിലെ ആണെങ്കിൽ അതിനെ കുളിപ്പിക്കുക അതിൻ്റെ വിസർജ്ജനം അതെല്ലാം മാറ്റുക അതിന് കൂട്ടി കൊടുക്കുക അതിന് ശേഷം ഇതിനെ കറക്കുക അപ്പോൾ ഒരുപാട് നല്ല ഉൽപ്പാദനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള പാലുകൾ നമുക്ക് കറന്നെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആടുകളൊക്കെ ആണ് ആടുകളെ ആണെങ്കിലും നല്ല ഇനം ആടുകളെ നോക്കി നമ്മൾ ഇതുങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് വീട്ടിൽ ഇങ്ങനെയുള്ള ഇനങ്ങളൊക്കെ നമുക്ക് നാടനിപ്പം നാടൻ കന്നുകാലികളാ ആടും ആടുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പുതിയ ഇനം സംകര ഉള്ള നമുക്ക് ഇവിടെ പറ്റുന്ന മലബാറി അല്ലെങ്കിൽ ബില്ലി ഇങ്ങനെയുള്ള ആടുകളൊക്കെ നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജേഴ്സി പശുക്കൾ നല്ല ഇനം പാൽ കിട്ടുന്ന പല പാലുകളും പശുവിനെ നമുക്ക് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഈ പത്തനംതിട്ടയിലെ സംബന്ധിച്ചിടത്തോളം ജേഴ്സി പശുക്കൾക്കാണ് കൂടുതൽ രോഗങ്ങളൊക്കെ വരാതെ നമുക്ക് കാണുന്നത് അതിൻ്റെ പാലും നമുക്ക് അതിനെ ഉൽപ്പാദനവും ന്യായമായ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ അമിതമായി പാൽ വരുമ്പോഴത്തേന് ഇതിന് അകിട് വീക്കം ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്ന് കഴിയുമ്പോഴത്തേന് നമുക്കത് താങ്ങാനൊരു കർഷകനെ സംബന്ധിച്ച് വരുമ്പം താങ്ങാനാവാത്തെ ഒരു ഇതുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ നാടിന് യോജിച്ച വിധമുള്ള കന്നുകാലികൾ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും